ഞാൻ ഇന്ത്യൻ ഗ്യാസിൻ്റെ ഒരു ഉപഭോക്താവായിരുന്നു എന്നാൽ ഞാൻ സ്ഥലം മാറുന്നതിനനുസരിച്ച് എനിക്ക് മറ്റൊരു ഗ്യാസ് സിലിണ്ടറ് ബുക്കിംഗ് ദാതാവിലേക്ക് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാൻ മുന്നോട്ടു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഗ്യാസിൻ്റെ ബുക്കിംഗ് എനിക്ക് റദ്ദാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ഗ്യാസ് ഏജൻസീനെ ഞാനിപ്പോൾ വിളിച്ചേക്കുന്നത് എൻ്റെ ബുക്കിംഗ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന നൽകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബുക്കിംങ്ങിൻ്റെ റഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നാല് ഏഴ് മൂന്ന് എട്ട് നാല് രണ്ട് മൂന്ന് മൂന്ന് ഏഴ് ഒമ്പത് നാല് രണ്ട് എട്ട് എന്നുള്ളതാണ് അതുപോലെതന്നെ എൻ്റെ ഇപ്പോഴത്തെ അഭ്യർത്ഥനയ്ക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഉടനെ തന്നെ വേറെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി വന്നിരിക്കുകയാണ് ആ പ്രദേശത്തെ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് മറ്റൊരു ഗ്യാസ് ദാതാവാണ് അതുകൊണ്ടുതന്നെ എൻ്റെ എളുപ്പത്തിനും അതുപോലെത്തന്നെ ബാക്കിയുള്ളവരുടെ സ്ഥലപരിമിതികളും നിലവിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പുതിയൊരു ഗ്യാസ് ദാതാവിലേക്ക് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഉടൻ തന്നെ എൻ്റെ ഗ്യാസ് റഫറൻസ് റദ്ദാക്കാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെത്തന്നെ റദ്ദാക്കി എങ്കിൽ ഇപ്പോഴത്തെ നില എന്താണ് എന്നുള്ളതും കൂടെ എന്നെ അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെത്തന്നെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം ഗ്യാസ് ഏത് തന്നെയായാലും എല്ലാം ഒരുപോലെയാണ് കമ്പനികൾ പലതാണ് അതുകൊണ്ട് തന്നെ ഏത് കമ്പനികളുടെ എടുത്താലും എല്ലാം ഒരേപോലെ തന്നെ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഗ്യാസ് ബുക്കിംഗ് ഞാൻ നടത്തിയത് റദ്ദാക്കേണ്ടതാണ് അതുപോലെത്തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ നിലയെന്താണ് എന്നുള്ളത് കൂടി എന്നെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക